നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ റേഡിയോയിലൂടെ ആയിരുന്നു എല്ലാം ന്യൂസ് ആണെങ്കിലും എന്താണെങ്കിലും റേഡിയോയിലൂടെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ടിവിയൊക്കെ വന്നതുകൊണ്ട് ടിവിയോട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ടിവി ലാപ്ടോപ്പ് ഫോണ് അങ്ങനെ കൂടുതൽ അതിനോടാണ് ഇപ്പോൾ എല്ലാവർക്കും കൂടുതലിഷ്ടം അപ്പോൾ മെയിനായിട്ട് കാലഘട്ടം മാറിയതുകൊണ്ടുതന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനും മാറി അപ്പോൾ അതുപോലെത്തന്നെ കൂടുതല് ഇപ്പോൾ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് സിനിമ ടെലിവിഷൻ റേഡിയോ ഡിജിറ്റൽ അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ സിനിമയാണെങ്കിൽ നമ്മള് ടിവിയിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും ഫോണിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പണ്ടുള്ള ഒരു റേഡിയോയിൽ നിന്ന് വ്യത്യസ്തപരായിട്ട് എന്ത് വന്നൂന്നു ചോദിച്ചാൽ ടിവി ടെലിവിഷൻ വന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് എല്ലാവർക്കും യൂസ് ഫുള്ളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ടെലിവിഷൻ ന്യൂസ് കേക്കാനും കേക്കല്ല കാണാൻ പറ്റും പറ്റുന്നതടക്കം ഇപ്പോൾ ടിവിയിലാണ് അതുകൊണ്ട് ഭയങ്കര യൂസ് ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ടെക്നോളജി മാറിയതോടെ നമ്മുടെ കാലഘട്ടവും മാറി മാറി വരുന്നു എന്ന് വേണം പറയാൻ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ